കേന്ദ്രവാർത്താചാനലുകള് ആ കേന്ദ്രത്തിന്റെ അതല്ലെങ്കിൽ സർക്കാരിന്റെ നിയമത്തിന്റെ അകത്തു നിന്നു കൊണ്ട് പ്രവർത്തിക്കേണ്ട ചാനലുകളാണ് ആ സ്ഥാനത്ത് പ്രാദേശിക വാർത്താ ചാനലുകൾക്ക് അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടില്ല അതുകൊണ്ടുതന്നെ അവർക്ക് കാര്യങ്ങള് തിരഞ്ഞ് കണ്ടെത്തി പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഓരോ മുക്കും മൂലയും അവർക്കറിയാം അവിടെയൊക്കെ കടന്നുചെന്ന് വാർത്തകൾ സ ശേഖരിക്കാനും അത് പ്രാദേശികമായിത്തന്നെ പെട്ടെന്ന് പ്രദർശിപ്പിക്കാനും പങ്കുവെക്കാനൊക്കെ കഴിയും എന്നുള്ളതുകൊണ്ട് ഈ വാർത്ത ചാനലുകളും പ്രാദേശിക വാർത്താചാനലുകളും തമ്മില് ഉള്ള വ്യത്യാസം ഒന്ന് പ്രൈവറ്റാണ് ഒന്ന് സർക്കാരാണ് ഇത് തന്നെയാണ് അതിന്റെ വ്യത്യാസം അതെല്ലാ കാര്യത്തിലും അത് തെളിയിക്കുകയും ചെയ്യും പ്രൈവറ്റ് ചാനലുകള് കാശ് മുടക്കി കാര്യങ്ങള് ചെയ്യുന്നതുപോലെ സർക്കാരിൽ ന്നുള്ള കാര്യങ്ങള് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ സത്യസന്ധത അത് പ്രാ ഈ പ്രാദേശിക വാർത്ത ചാനലുകൾക്ക് പ്രതീക്ഷിക്കാ അത്ര വലിയ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട കാരണം അവര് ഏതെങ്കിലും മുതലാളിമാരുടെ സൃഷ്ടിയാണ്